പഴയ കാലങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നു പറഞ്ഞാൽ പഴയ ഗാനങ്ങൾ കൂടുതലും ഓരോ വരികൾക്കും അതിൻ്റേതായ അർഥങ്ങളുണ്ട് നമുക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ സന്തോഷങ്ങൾ തരുന്ന വരികളാണ് പഴയ ഗാനങ്ങൾ പുതിയ ഗാനങ്ങളിൽ അർഥങ്ങൾ ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടത് ഇഷ്ടം കൂടുതലുള്ളത് പഴയ ഗാനങ്ങളോടാണ് കാരണം കെ എസ് ചിത്ര അതുപോലെ തന്നെ യേശുദാസ് ഇതുപോലെ എല്ലാം വലിയ വലിയ നല്ല ഗയകന്മാരുടെ ഒരുപാട് പഴയ ഗാനങ്ങളുണ്ട് അതിൽ വളരെ നമുക്ക് സന്തോഷവും നമുക്ക് ഒരു സങ്കടം വന്നാലും ഏതൊരു വിഷമത്തിലും നമുക്ക് സന്തോഷം സമാധാനം തരുന്നത് എന്ന ഏറ്റവും കൂടുതൽ നല്ലത് പഴയ ഗാനങ്ങൾ ആ ആണന്നാണ് എൻ്റെ ഒരു വിശ്വാസം പഴയ ഗാനങ്ങളിൽ നമുക്ക് എപ്പോഴും വളരെ ശാന്തവും ആയിട്ടുള്ള ഗാനങ്ങളാണ് കൂടുതലും ഉള്ളത് പുതിയ ഗാനങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ പുതുമ ഉള്ള ഗാനങ്ങളൊക്കെ ആയതുകൊണ്ടും പണ്ടത്തെ ആൾക്കാർക്ക് പുതിയ ഗാനങ്ങളോട് അധികം വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ എന്നാലും പഴയ ഗാനങ്ങളാണ് പഴയ ഗാനങ്ങളോടാണ് പഴയ കാലത്തുള്ളവരാണെങ്കിലും എന്നാൽ ഇപ്പോഴത്തെ പുതിയ തലമുറ ഉള്ളവർക്കാണെങ്കിലും കൂടുതലും ഇഷ്ടം പഴയ ഗാനങ്ങളോടാണ് പുതിയ ഗാനങ്ങളിൽ പ്രത്യേകിച്ചും ചില വരികളിലൊന്നും വല്യ അർത്ഥങ്ങളൊന്നുമില്ല വെറുതെ വായിലുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ അർഥങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും പഴയ ഗാനങ്ങളാണ് ഏറ്റവും നല്ലത് എനിക്ക് ഏറ്റോവും ഇഷ്ടം ഞാൻ കൂടുതലും കേൾക്കുന്നതും പഴയ ഗാനങ്ങളാണ് പുതിയ ഗാനങ്ങൾ ചിലത് മാത്രമാണ് പഴയ ഗാനങ്ങളുമായിട്ട് സാമ്യമുള്ളത് ചില ഗാനങ്ങളെ ഉള്ളു പുതിയതായിട്ടുള്ള ഗാനങ്ങളൊക്കെ അതൊക്കെയെയുള്ളു നമുക്ക് കേൾക്കാൻ പമ്പത്തുള്ളു മനസിന് നല്ല കുളിർമയൊക്കെ കിട്ടുന്നത് പഴയ ഗാനങ്ങളൊക്കെ ഓടാണും പിന്നെ പുതിയ ഗാനങ്ങൾ നമുക്ക് കു റച്ച് എന്താണ് വിനോദയാത്രകൾകൊക്കെ പോകുമ്പം ചില പുതിയ ഗാനങ്ങളോക്കെ നമുക്ക് കൂടുതലുപകാരപ്പെടുമെങ്കിലും നമുക്ക് കൂടുതൽ സന്തോഷങ്ങളുമോ ഉണ്ടാകുന്നത് മനസിൽ ഒരു സമാധാനവും എന്തേലും ദുഖങ്ങളും സന്തോഷളുമൊക്കെ വന്നാലും ചി ല പഴയ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പം പഴയ കുറേ ഓർമ്മകൾളേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് പഴയ ഗാനങ്ങൾക്ക് മാത്രമെ സാധിക്കത്തൊള്ളു പുതിയ ഗാനങ്ങൾക്ക് സാധിക്കുമെങ്കിലും നമുക്ക് കുറെ നല്ല രീതിയിലുള്ള അതിലൂടെ നൃത്തങ്ങൾ വരെ നമുക്ക് ചെയ്യുവാനാണെങ്കിൽ നാണെങ്കിൽ പറ്റും പുതിയ ചില ഗാനങ്ങളിലുമൊക്കെയായി പിന്നെ പഴയ ഗാനങ്ങളിൽ വ്യത്യാസം പുതിയ ഗാനങ്ങളും വ്യത്യാസം എന്നു പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളിലൊന്നും ചെല കാര്യങ്ങളിലൊന്നും അർത്ഥങ്ങളൊന്നും വരത്തില്ല അതാണ് പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഏറ്റവും നല്ലത് ഗാനങ്ങളാണ്